മലയാളികൾ അവരുടെ സാംസ്ക്കാരിക പാരമ്പര്യങ്ങളെ ആഘോഷിക്കാനും ആദരിക്കാനും അവരുടേതായ ഭാഷ തന്നെയാണ് ഉപയോഗിക്കുക അതായത് ഇപ്പോൾ ഓരോ ജില്ലകളിൽ തന്നെ പലതരം മലയാളം തന്നെ ആണെങ്കിൽ പോലും പല പല പല വാക്കുകളാണ് ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കണ്ണൂരുകാർ സംസാരിക്കുന്നത് മലപ്പുറത്തുകാർക്കോ കോഴിക്കോടുകാർക്കോ ഇപ്പോൾ തൃശ്ശൂർകാർക്കോ ഒന്നും മനസ്സിലാവണം എന്നില്ല നമ്മുടെ ആഘോഷങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ പോലും അവർ വിചാരിക്കും എന്താ ഇവർ സംസാരിക്കുന്നത് അത്രപോലും മനസ്സിലാവാൻ പറ്റാത്ത വിധത്തിൽ ഓരോ ജില്ലയിൽ ഓരോ ഭാഷകളാണ് അതുപോലെതന്നെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലൊക്കെ പോയിക്കഴിഞ്ഞാൽ നമ്മളെ കണ്ണൂർ ഭാഷ എന്താ അവർ പറയുന്നത് അതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാവും ഒരേ ഒരു ഒരു മലയാളം എന്നുള്ളൊരു ഭാഷ ആണെങ്കിൽ പോലും അതിൽത്തന്നെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ട് പഠിച്ചത് വായിച്ചു പഠിച്ചത് നമ്മൾ എഴുതിപ്പഠിച്ചതല്ല നമ്മൾ പറയാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ടുതന്നെ ഓരോരോ ഭാഷകൾ നമ്മൾ എങ്ങനെയാണോ ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് ആലോചിച്ചിട്ട് ആ ഒരു വിധത്തിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നത്